ഇത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ അല്ലേ എനിക്കൊര് കംപ്ലയിൻറ്റ് ഫയല് ചെയ്യാനുണ്ടായിരുന്നു മ്മ് ഇത് എൻ്റെ കോളേജിൻ്റെ അടുത്ത് ഞാൻ ഫേസ് ചെയ്യുന്നതാണ് ഈവ് ടീസിംഗ് അപ്പോൾ അതിൻ്റെ എതിരെ എനിക്ക് ഒരു കേസ് ഫയൽ ചെയ്യണമായിരുന്നു അപ്പം ഞാൻ അവിടെ ഡയറക്റ്റ് ആയിട്ട് വന്ന് എസ് എസ് നെ കാണണോ അതോ ഫോൺ വഴി എനിക്ക് ഈ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റുമോ ഞാനാണ് എൻ്റെ പേര് സംവൃത എന്നാണ് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഞാൻ അവിടെ കോളേജിൽ പഠിക്കുകയാണ് ശ്രീകാര്യം ലോയുള്ള കോളേജിൽ അപ്പം അവിടെ ബസ് സ്റ്റോപ്പിൽ പോവുന്ന വഴിയിലാണ് ഞാനിങ്ങനെ ആൾക്കാർ ഒരു കൂട്ടത്തോടെ നിൽക്കുന്നതും അവരിങ്ങനെ വഴി പോകുന്നവരെ ഒക്കെ ഇങ്ങനെ ഈവ് ടീസിംഗ് ആണ് അവരുടെ മെയിൻ പരിപാടി അപ്പം അതിൻ്റെ ഇതിലൊരു കേസ് ഫയൽ ചെയ്യാനായിട്ടാ വിളിച്ചത് മ്മ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ വേണോ ഇതിൻ്റെ ഹിയറിംഗിന് ആയിട്ട് എപ്പോഴക്കെയായിട്ടാ പോലീസ് സ്റ്റേഷൻല് വരേണ്ടത് ലോയേഴ്സ് അവിടുന്ന് വരുമോ അതോ ഞങ്ങൾ തന്നെ കൊണ്ട് വരണോ മ്മ് ഫീസ് ആയിട്ട് എന്തെങ്കിലും ആവുമോ ആ ശരി അപ്പോൾ താങ്ക് യു സോ മച്ച്